ആ അതെ പറയൂ ആ ഓക്കെ മഴ വല്ലതും നനഞ്ഞിരുന്നോ ആ ഓക്കെ ആ നൈറ്റ് അങ്ങനെ എന്തെങ്കിലും തണുത്തത് എന്തെങ്കിലും കഴിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിരുന്നു എപ്പോഴാണ് തുടങ്ങിയത് മൂന്ന് ദിവസമായല്ലേ എവിടെയെങ്കിലും കാണിച്ചിരുന്നോ ഇതിന് മുൻപ് ആ ഓക്കെ ആ ഓക്കെ പാരാസെറ്റാമോൾ ഒക്കെ നമുക്ക് ഒരു ഡോസ് കംപ്ലീറ്റ് ആയിട്ട് കഴിക്കണമെങ്കിൽ മൂന്നെണ്ണം കഴിക്കണം മൂന്ന് നേരം ഏ വീട്ടിൽ പാരസെറ്റാമോൾ ഉണ്ടോ ആ ഓക്കെ അപ്പോൾ അതിൽ മൂന്നെണ്ണം മൂന്ന് നേരം ഭക്ഷണത്തിന് ശേഷം കഴിക്കുക പിന്നെ വേറെന്തെങ്കിലും ബുദ്ദിമുട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ജലദോഷമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ചുമയുണ്ട് ആ ഇത് ഇന്ന് നമ്മൾ ഇപ്പോൾ ഐസ് ക്രീം കഴിച്ചതിൻ്റെയൊ മഴ നനഞ്ഞതിൻ്റെയൊക്കെയോ ആയിരിക്കും എന്തായാലും മൂന്ന് പാരാസെറ്റാമോൾ കഴിക്കുക എന്നിട്ട് കുറവ് ഉണ്ടോ എന്ന് നോക്കുക കുറവില്ലെങ്കിൽ ഒന്ന് ഹോസ്പിറ്റൽ വരെ വന്നാൽ മതി വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയണം

തീരെ കുറവില്ലെങ്കിൽ ആ ഓക്കെ തീരെ കുറവില്ലെങ്കിൽ വന്നാൽ മതി ഹോസ്പിറ്റലിലേക്ക് ഓക്കെ നിങ്ങൾ നാളെ ഫ്രീ ആയിരിക്കുമോ എന്നാൽ നാളെ ഒന്ന് ഹോസ്പിറ്റൽ വരെ വരുക നമുക്കൊന്ന് നോക്കിയിട്ട് എന്താണ് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞ് തരാം ഹോസ്പിറ്റലിലേക്ക് അറിയില്ലേ ആ ഓക്കെ അപ്പോൾ വരുമ്പോൾ ഒന്ന് വിളിച്ച് പറയുവാണെങ്കിൽ ഞാൻ നേരത്തെ ബുക്ക് ചെയ്തേക്കാം ആ ഓക്കെ അപ്പോൾ ഇറങ്ങുന്നതിന് മുൻപ് എന്നെ ഒന്ന് വിളിച്ചാൽ മതി ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് തരാം ഓക്കെ എന്നാൽ വരുന്നതിന് മുൻപ് ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ ഓക്കെ എന്നാൽ